ഞാൻ കാണുന്നത് കായിക വിനോദമെന്നു പറഞ്ഞാൽ അത് ഫുട്ബോളാണ് ഫുട്ബോൾ അറിയാലോ നല്ലൊരു നല്ലൊരു ഗെയിമിംങ്ങാണ് പിന്നെ ഞാൻ അത് കാണുന്നത് ചില സമയത്ത് ടി വിയിലും ചില സമയത്ത് ഓ ടി ടി പ്ലാറ്റ്ഫോമിൽ ലൈവും കാണാറുണ്ട് ചിലപ്പോൾ യൂട്യൂബ് ലൈവിലും കാണാറുണ്ട് അത് പക്ഷേ യൂ യൂട്യൂബിലും ടി വിയിലും കാണുമ്പോൾ കൂട്ടുകാരോടൊക്കെ നിൽക്കും എന്താ കാണുന്നത് പലസ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്കിരുന്നു കാണുന്നത് അല്ലാത്ത സമയത്ത് ഞാൻ കൂട്ടുകാരോടൊക്കെയാണ് കാണാറ് അപ്പം ക്രിക്കറ്റ് മത്സരങ്ങളെനിക്ക് അല്ല ഫുട്ബോൾ മത്സരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് ഫുട്ബോളാണ് നിക്ക് ഏറ്റവും കൂടുതലിഷ്ടപ്പെട്ട കളിക്കാരൻ ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സിയെന്നു പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് നല്ല ഉയിരാണ് അപ്പം ലയണൽ മെസ്സിയെ പറ്റി പറയാണെങ്കിൽ ഒന്നും പറയാനില്ല ഫുട്ബോളിൻ്റെ തന്നെ ദൈവമെന്നു പറയാം അമ്മാതിരി കളിയാണ് കളിക്കുന്നത് അപ്പം എനിക്ക് ലയണൽ മെസ്സിനെ ഏറ്റവും ഇഷ്ടം പിന്നെ റൊണാൾഡോനെ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് റിവെഞ്ചിങ് കൊടുക്കുന്നൊരു ഇത് നോക്കിയാൽ റൊണാൾഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്മറിനെ എനിക്ക് ഇഷ്ടവ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മെസ്സിയാണ് എനിക്ക് കാൽപന്ത് കളിയെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ആരാധന നന്നായിട്ട് ആരാധിക്കണ് കാൽപന്തുകളെ അപ്പം കാൽപന്തുകളിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ ഫുട്ബോൾ തന്നെയായിരിക്കും ക്രിക്കറ്റ് കാണുന്നതിനേക്കാളും മുമ്പേ ഐ എസ് എൽ ഉണ്ടെങ്കിൽ ഐ എസ് എൽ കണ്ടിട്ടെ ഐ പി എൽ പൊതുവെ ഞാൻ കാണാറുള്ളൂ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരൻ പറഞ്ഞല്ലോ മെസ്സി അതുപോലെ ക്രിക്കറ്റിലാണെങ്കിൽ രോഹിത് ശർമ അങ്ങനെ പല സമയവും ക്രിക്കറ്റും കാണാറുണ്ട് ഫുട്ബോളും കാണാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ രണ്ടു ഗെയിംസാണ് അപ്പം ഞാൻ ചുരുക്കി പറയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്രി അല്ല ഫുട്ബോൾ പിന്നെ ക്രിക്കറ്റ് അപ്പം ഞാനിത് ടി വിയിലും എല്ലാറ്റിലും കാണാറുണ്ട്